ഇന്ത്യൻ ആരോഗ്യസംരക്ഷണമേഖല എങ്ങനെ ഉള്ളതാണെന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം നമുക്ക് നല്ലതാണെന്ന് പറയാൻ പറ്റുന്നില്ല എന്നാൽ ഒരു പരിധി വരെയൊക്കെ ചെയ്യുന്നുണ്ട് പരമാവധി ശ്രമിക്കുന്നു നോക്കുന്നു ഒക്കെ ഉണ്ട് പിന്നെ കുറവുകളുണ്ട് ഒത്തിരി ഒത്തിരി കുറവുകളുണ്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെതായാലും പ്രൈവറ്റ് സെക്ഷനിലും എല്ലാംകൂടി ആയതുകൊണ്ട് ആരോഗ്യപരിപാലനം വലിയ ഒരിതില്ലാതെ പോകുന്നുണ്ട് മറ്റ് രാജ്യങ്ങളൊക്കെ ഒത്തിരി ഡെവലപ്പാണെന്ന് പറയുന്നെങ്കിലും ഇത്രയും ആരോഗ്യത്തിന് ഒരു പെട്ടെന്നൊരു ട്രീറ്റ്മെൻറ്റും കാര്യവും കിട്ടുന്നത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ആണെന്നാണ് നമ്മൾ വിദേശത്തൊക്കെ പോയവർ പറയുന്നുണ്ട് ഒരു ഡോക്ടറെ കാണണമെങ്കിൽ സമയം പിടിച്ച് അപ്പോയ്ൻമെൻറ്റെടുത്ത് ഒരു ഓരോ ടെസ്റ്റുകൾക്ക് വേണ്ടി ആണെങ്കിലും ചിലപ്പം എന്നെങ്കിലും ഒക്കെ ആണ് കിട്ടുന്നത് നമുക്കതൊന്നും ഇല്ലല്ലോ ഓടിപ്പോയി നമ്മളെ രാജ്യം ആരോഗ്യസംരക്ഷണത്തിലും ഒന്നാം സ്ഥാനം ഉള്ള രീതിയിലത് ഒരു നിലവാരത്തിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മരുന്നുകളാണെങ്കിലും സർക്കാർ തലത്തിലുണ്ട് പ്രൈവറ്റ് തലത്തിലുമാവശ്യത്തിന് എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയുള്ള ചികിത്സാരീതികളുണ്ട് കഴിവുള്ള ഡോക്ടർമാരുണ്ട് നഴ്സുമാരുണ്ട് എല്ലാ സ്റ്റാഫുകളും ധാരാളമുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ ആരോഗ്യമേഖല നീങ്ങുന്നതായതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും പരാതികളും എല്ലാത്തിനും ഉണ്ടല്ലോ കുറവുകളും എന്നാലും നമ്മുടെ സാമ്പത്തിക രാജ്യത്തിൻ്റെ സാമ്പത്തിക പരിഗണിച്ച് നോക്കുമ്പോൾ നല്ല ഒരു ആരോഗ്യമേഖല ഉള്ളതാ ഉളളതാ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഉണ്ടാകുന്ന വെല്ലുവിളികളെന്തെന്ന് ചോദിച്ചാൽ ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നവർ ധാരാളം ഉണ്ട് പിന്നെ ചില പാളിച്ചകളൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണോ ആരെയാ എന്താണതിൻ്റെ കാരണമെന്ന് നമുക്ക് മനസിലാവുന്നില്ല എല്ലാവരും നന്നായി പഠിച്ച നല്ലൊരു ഡോക്ടർസും നഴ്സുമാരും മറ്റു സ്റ്റാഫുകളും അല്ലാതെ മെഷീനറികളും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ലാത്ത ആരോഗ്യമേഖല തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയ സാമ്പത്തികമായി പിന്നോക്കം നില്ക്കുന്നവർക്ക് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളിലും എല്ലാവിധ സൗകര്യവും സജ്ജീകരണം തന്നെ ഉണ്ട് പിന്നെ ജോലിക്കാരുടെ കുറവുകളും മറ്റും ആ ഉണ്ടാകും അതിൻ്റെ പേരിൽ പിന്നെ ജോലിക്കാർക്ക് കൊടുക്കുന്ന വേദനത്തിൻ്റെ പേരിലും ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നുണ്ടായിരിക്കും പിന്നെ ഈ വേതനം കുറവായതുകൊണ്ടാണ് ഒത്തിരി ജോലിക്കാർ വിദേശങ്ങളിലേക്ക് പോകുന്നു അപ്പോൾ നമുക്കിവിടെ ജീവനക്കാരെ ആവശ്യത്തിന് തികയാതെ വരും അപ്പോൾ രോഗികളുടെ കാര്യം ബുദ്ധിമുട്ടിലാകുന്നു പിന്നെ ഇങ്ങനെ ഉള്ള ആരോഗ്യമേഖലകളിൽ വന്ന് മറ്റ് മറ്റ് പ്രശ്നങ്ങളുണ്ടാക്കുന്ന സാധാരണ ജനങ്ങൾ ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതൊന്നും ശരിയായ കാര്യങ്ങളല്ല അവർക്കും ഒരു ബോധവൽക്കരണം കൊടുക്കണം ജനങ്ങൾക്കായി ഇവരും നമ്മളെപ്പോലെ തന്നെ ഉള്ള മനുഷ്യരാണ് ജോലിക്ക് വരുന്നതാണ് അവരില്ലെങ്കിൽ നമ്മളുടെ രോഗങ്ങൾക്ക് ആരാണൊരു പരിഹാരം കാണുന്നത് അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് നമ്മൾ ജനങ്ങൾ തന്നെയാണ് ആരോഗ്യമേഖലയിലവർക്കും ആത്മാർത്ഥമായി ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിച്ചുകൊടുക്കണം അവരത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും ആരോഗ്യമേഖല ഇന്ന് നേരിടുന്നുണ്ട് പിന്നെ സാമ്പത്തികത്തിൻ്റെ കുറവുകളാണ് വലിയൊരു പരിഹാര അതിനൊരു പരിഹാരങ്ങളെ എങ്ങനെയായാലും ഇൻഷുറൻസ് വഴിയും മറ്റും ഒക്കെ ഉണ്ടെങ്കിലും വേണ്ടത്ര അങ്ങോട്ട് സംരക്ഷണം ലഭിക്കുന്നില്ല കുട്ടികളുടെ സംരക്ഷണവും മാതാപിതാ പ്രായമായവരുടേതും ഒക്കെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കാൻ നമ്മളുടെ രാജ്യത്തിന് പരമാവധി പറ്റുന്നുണ്ട് ഗർഭിണികളുടെ കാര്യമായാലും ഒക്കെ നല്ല സംരക്ഷണം തന്നെയാണ് ലഭിക്കുന്നത് എല്ലാ മറ്റ് രാജ്യങ്ങള് സമ്പന്നമാണെങ്കിലും അവരിൽ നിന്നും അത് അത് വച്ച് നോക്കുമ്പോൾ അവരുടെ രാജ്യത്തെ വച്ച് നോക്കുമ്പം നമ്മുടെ രാജ്യം ഇത്രയും സാമ്പത്തികത്തിൽ നിന്നുകൊണ്ട് നല്ലൊരാരോഗ്യ സംരക്ഷണം തന്നെ നിലനിർത്തുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടില്ല ഞാൻ